കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളെന്ന് പറഞ്ഞാൽ അത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മലയാളം പാട്ടുകൾ തന്നെയാണ് ഓരോ കാലഘട്ടത്തിനനുരിച്ചു മാറും പണ്ട് ഭയങ്കര ഒരു സമയത്ത് ഹിന്ദി പാട്ടായിരുന്നു അത് മാപ്പിള പാട്ടായിരുന്നു പിന്നെ പെട്ടന്ന് മലയാളാം പാട്ടായി അപ്പം അങ്ങനെ എല്ലാ അങ്ങനെ പാട്ടൊന്നുമില്ല ഇപ്പം എവിടെയും ട്രെൻഡായിട്ട് നിൽക്കുന്ന പാട്ട് ഈ തമിഴ് ഉണ്ടാാവും തെലുങ്ക് പാട്ടുകൾ വരെ ഭാഷ ഒന്നും മനസ്സിലാവില്ലെങ്കിലും തെലുങ്ക് ഒരു അക്ഷരം മനസ്സിലാവില്ല തമിഴൊക്കെ പിന്നെയും മനസ്സിലാവും തെലുങ്കൊന്നും തെലുങ്കും കന്നഡയൊന്നും മനസ്സിലാവില്ല എന്നിട്ട് അപ്പോഴത്തെ കന്നഡ പാട്ടില്ല തെലുങ്കു പാട്ട് പിന്നെ ഈ ഈ പണ്ട് ഡബ് ചെയ്ത പാട്ടുകളൊക്കെ ആണെങ്കിൽ ഇതിൽ ഇപ്പം ഡബ് ചെയ്യത്തതുണ്ട് പാർക്കണ സിനിമയിലൊക്കെയുള്ള പാട്ടുകൾ അങ്ങനെ അതിലുള്ളത് ഹിന്ദി ഹിന്ദിൻ്റെ അർത്ഥം വന്ന അറിയില്ല എന്നാലും ഹിന്ദി പാട്ടിൻ്റെ പണ്ടേ പോപ്പുലറായിട്ടുള്ള ഈ ഷരൂഖാൻ്റേയു ഈ സോനു നിഗം ആർജിത് സിംഗ് ആതിഫ് അസ്ലം അങ്ങനെയുള്ള ആളുകളൊക്കെ പാടുന്ന പാട്ടുകൾ മലയാളത്തിലാണ് യേശുദാസ് ഉണ്ട് എംജി ഉണ്ട് തമിഴ്നാട്ടിൽ ഇപ്പം പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകൻ എ ആർ റഹ്മാൻ്റെ പാട്ടുകൾ ഉണ്ട് പിന്നെ മറ്റേ അനിരുദ്ധിൻ്റെ പാട്ടുകൾ ഇവരൊക്കെ ചെയ്യുന്ന പണ്ടത്തെ ക്ലാസ്സിക്കൽ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇളയ രാജ അങ്ങനെ ആളുകളൊക്കെ പാടുന്ന പാട്ടുകളുണ്ട് അപ്പം എല്ലാ പാട്ടും ഇഷ്ടമാണ് ഓരോ കാലത്തിന് അനുസരിച്ചു ഓരോ ആളുകളുടെ പാട്ടിൽ നമ്മൾ മാറും മാറും ഈ പാട്ടുകൾ കേൾക്കുന്നത് അധികം പണ്ട് കാലത്ത് ഈ റേഡിയ വരുന്നു റേഡിയോയിൽ ഇപ്പം എനിക്ക് ചെറുപ്പം ചെറുപ്പകാലത്തൊക്കെ റേഡിയോയിൽ നിന്നുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു പിന്നീട് അത് ടിവിയിൽ നിന്ന് ഓരോ ഈ പാട്ടിന് ഇപ്പം പ്രധാമായിട്ട് പറയുകയാണെങ്കിൽ കൈരളിൻ്റെ വി ടിവിയിൽ ഡ്യൂ ഡ്രോപ്പസ് എന്ന പ്രോഗ്രാമുണ്ട് വൈകുന്നേരം അഞ്ചരയൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ വരും അപ്പം അത് കാണാൻ വേണ്ടി നിൽക്കും കുറേ കാലം അങ്ങനത്തെ പാട്ടുകുകളുണ്ട് പിന്നെ അരികിൽ ഇല്ലെങ്കിലും പിന്നെ അങ്ങനെയുള്ള കുറച്ചു പാട്ടുകളൊക്കെ ഉണ്ട് അപ്പം അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ എസിവിൻ്റെ തന്നെ ജൂ ബോക്സ് പറഞ്ഞു കൊണ്ടൊരു ചാനൽ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഇങ്ങനെ ഓരോ നമ്പർ അടിച്ചു കൊടുത്താൽ വരും അപ്പം അങ്ങനെ നമ്പർ അടിച്ചു കൊടുത്തു കൊണ്ട് അതിലും പോവലുണ്ട് അല്ലാെതെ പിന്നെ ഉള്ളതെന്നു വച്ചാൽ ഇപ്പം അടുത്ത് പിന്നെ ഈ നെറ്റ് വന്നതിന് ശേഷമാണ് ഈ പാട്ട് ഡൗൺലോഡ് ചെയ്യും നേരെ പ്ലേലിസ്റ്റ ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ ഇൻറർനെറ്റ് കഫേയിൽ പോയിട്ട് പൈസ കൊടുത്തൊക്കെ എന്ത് ചെയ്യും ഈ പേപ്പറ് അല്ല ഇത് വാങ്ങിക്കും പിന്നെയുള്ളത് എന്താണെന്ന് വച്ചാൽ പിന്നെ നമ്മളെ ഈ നെറ്റും ഒക്കെ വന്നു യൂട്യൂബൊക്കെ വന്നു പണ്ടത്തെ നോക്കിയ ഫോണിലെ യൂട്യൂബിൽ നമുക്ക് എന്താണ് ഓണ ആവാൻ ലോഡ് ചെയ്യാൻ നെറ്റും ഉണ്ടാവില്ല പിന്നെ കുറച്ചു ടച്ച് ഫോൺ കിട്ടിയതിന്ന് ശേഷമാണ് യൂട്യൂബ് വരുന്നതും അതിൽ തപ്പിയിട്ട് പാട്ട് വരും പാട്ട് പിന്നെ ഇപ്പം യൂട്യൂബിലും ഇങ്ങനത്തെ ഒരു ആപ്പുകൾ ഉണ്ടല്ലോ റസോ ഉണ്ട് സ്പോട്ടിഫൈ ഉണ്ട് യൂട്യൂബ് മ്യൂസിക്ക ഉണ്ട് അല്ലാതെ തന്നെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള പാട്ടുകളും ഇപ്പം അങ്ങനെ എല്ലാ പാട്ടുകളും ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി സെർച്ച ചെയ്യേണ്ട പാട്ട് നമുക്ക് ഒരു മ്യൂസിക് കിട്ടിയാലും മതി ആ മ്യൂസിക് കിട്ടിയാൽ കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെയൊക്കെ മറ്റെ മ്യൂസിക്കിൻ്റെ സാധനത്തിൽ പോയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും അത് നേരെ ആ പാട്ട് നമ്മൾക്ക് വരും നമ്മൾ ബസ്സിലൊക്കെ പോവുകയാണെന്നുങ്കിൽ ആ പാട്ട് നമുക്ക് കിട്ടും വരിമ്മള് പഠിക്കണന്നുല്ല അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ ഒരു ടെക്നോളജി കൊണ്ട് ഇപ്പം അങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ ഉണ്ട് സാങ്കേതിക വിദ്യ കൊണ്ടൊക്കെ അപ്പം ആ പാട്ടിൻ്റെ കാര്യത്തിന് അങ്ങനെയാണ് പാട്ട് പൊതുവേ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പാട്ട് വരുന്നത് അപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അപ്പം പണ്ട് ഞാൻ ഈ മലയാളം പാട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഹിന്ദി ഒന്നും മനസ്സിലായില്ല ഹിന്ദി പണ്ടത്തെ മുഹമ്മദ് റാഫിൻ്റെ പാട്ടുകളൊക്കെ ഹിന്ദി പോകുമ്പോൾ ഹിന്ദി പാട്ടുകളെ പിന്നെ വീണ്ടും പിന്നെ കൊറച്ചു മലയാളമും തമിഴൊക്കെ മിക്സാക്കി വന്നു പിന്നെ ഈ ഹൈസ്കൂൾ സമയത്തൊക്കെ പിന്നേയും ഹിന്ദി പാട്ടുകൾ പിന്നെ ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ തമിഴ് മലയാളമൊക്കെ അടുപ്പിച്ചു വന്നു മലയാളം പാട്ടുകൾ അപ്പോൾ അധികം നല്ല പാട്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് തൊണ്ണൂറ് അങ്ങനെയുള്ള ഇതിലുള്ള പാട്ട് രണ്ടായരത്തിൽ ഇപ്പം അടുത്ത് ഇറങ്ങുന്ന പാട്ടുകളൊക്കെ അപ്പം അപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടുകുകൾ അധികം ഇപ്പം എല്ലാത്തുലും അധികം വല്ല സംഭവം ഉണ്ടായി രണ്ടായിരത്തി ഒരു ആറ് മുതൽ പതിനാല് പന്ത്രണ്ട് വരെയുള്ള സമയത്തൊക്കെ ഹിന്ദിയിലൊക്കെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്ന് അങ്ങനെ പാട്ടുകൾ കമ്മിയാണ് ഇല്ല എന്നല്ല പണ്ട് ഇറങ്ങുനതിൽ സിനിമ പറ്റി ലോക്കല് പടണെങ്കിലും അതിലത്തെ പാട്ടുകളൊക്കെ അടിപൊളി ഉണ്ട് അപ്പം അത്തരത്തിലുള്ള അടിപൊളി പാട്ടുകളൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു സംഭവം ഉണ്ട് എന്താച്ചാൽ പാട്ടുകൾ പൊതുവേ വലിയ പ്രശ്നമൊന്നുമില്ല പാട്ടിൽ പറയുകയാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പാട്ടുകളാണ് വരൽ അപ്പ വലിയ പ്രശ്നമില്ലാത്ത പാട്ടുകളൊക്കെയാണ് അധികം വരാറുള്ളത് ഈ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നതും തമിഴിലും കിട്ടുന്ന പാട്ടുകളൊന്നുമില്ല ഫേവറേറ്റ ആയിട്ടുള്ള സിംഗേഴ്സ് ഒന്നും ഇല്ല അങ്ങനെ പാട്ടുകാരൊന്നുമില്ല അപ്പം പാട്ടിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാ എല്ലാ പാട്ടിലും ഇതുണ്ട് അപ്പം കുറേ കോപ്പിയടിക്കാനൊക്കെ വരും ചില പാട്ടുകൾ പണ്ടത്തെ ഏതെങ്കിലും പാട്ടിനൊക്കെ ഒരു ഒരേ ശ്രുതി വരുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്തുള്ള ഫ്രഞ്ച് ഇജിപ്ഷൻ അറബിക്ക് പാട്ടുകളൊക്കെ വരും പിന്നെ പുറത്തുള്ള പാട്ടുകൾ ഉണ്ട് ഇംഗ്ലീഷ് പാട്ടുകളും കേൾക്കാറുണ്ട് സിനിമയിലുള്ള പാട്ടുകളൊക്കെയാണ് അധികം കേൾക്കൽ പിന്നെ ഇപ്പം അടുത്ത് ഈ ഈ ഈ ജസ്റ്റിം പേപ്പർ അങ്ങനെ പോപ്പ് സംഗീതം അമേരിക്കയിൽ പോപ്പ് സംഗീതത്തിൻ്റെ ഈ പറഞ്ഞ ആളുകൾ ഉണ്ടല്ലോ ഡ്രേക്ക് അങ്ങനെയുള്ള ആളുകൾ അറബി പാട്ടുകൾ കേൾക്കൽ ഉണ്ട് പറഞ്ഞു മറ്റേ നാരി നാരി നാരി എന്നും അങ്ങനെയുള്ള കുറച്ചു പാട്ടുകളൊക്കെ പണ്ട് ഹിറ്റായിരുന്നു ഇപ്പോഴും അങ്ങനെ യൂട്യൂബൊക്കെ വരുന്നതു കൊണ്ട് റഷ്യൻ പാട്ടുകൾ വരെ മനസ്സിലാവില്ലെങ്കിലും ഇ പിന്നെ ഈ കൊറിയൻ പാട്ടുകൾ ബിടിഎസ്സിൻ്റെയൊക്കെ സോങ്ങുകളൊക്കെ ഹിറ്റാവാറുണ്ട് ഒന്ന് രണ്ട് പാട്ടൊക്കെ ഇംഗ്ളീഷ് പാട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ ഒന്ന് രണ്ട് പാട്ട് കാണിക്കുന്ന അങ്ങനെ പാട്ടുകളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ലാത്ത വിദേശത്തുള്ള ഇ നമ്മൾ ഈ ഇൻറർനെറ്റ് വന്നതുകൊണ്ടുള്ള ഗുണമാണ് സ്പാനിഷ് പാട്ടുകൾ മറ്റെ പറഞ്ഞിട്ടുള്ള സ്പാനിഷ് പാട്ടുള്ള ആൾക്കാർ ഉണ്ട് സ്പാനീഷ് ഉണ്ട് ഫ്രഞ്ച് ഉണ്ട് ഈ ഇംഗ്ലീഷ് ഉണ്ട് അറബിക്ക് ഉണ്ട് കൊറിയൻ ഉണ്ട് ചൈനീസ് ഉണ്ട് ഇന്ത്യെയിൽ തന്നെ പലതരം ബംഗാളി പാട്ടുകൾ ഈ ആസാമിൻ്റെ ട്രഡീഷണൽ പാട്ടുകൾ ആസാമിൻ്റെയുള്ള പാട്ടുകൾ അങ്ങനെയുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയുള്ള അങ്ങനത്തെയുള്ള വിദേശത്തുള്ള പാട്ടുകളൊക്കെ വരാൻ തുടങ്ങിയതൊക്കെ ഈ കാലഘട്ടത്തിലാണ് പാട്ടുകളും മൊത്തത്തിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല പിന്നെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്യുന്നതൊതൊക്കെ ഇത്തരം ഭാഗത്തു നിന്നാണ് വലിയ പ്രശ്നമില്ലാതെയാണ് പാട്ടുകളൊക്കെ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം നമ്മൾ കേൾക്കുന്നതൊക്കെ അധികം റേഡിയോയിൽ നിന്നാണെങ്കിലും ഇപ്പം ഫോണിൽ യൂട്യൂബും സ്പോട്ടിഫൈിയിൽ ഇപ്പം നമുക്ക് സർച്ച് ചെയ്താൽ മതിയല്ലോ ഇന്ന അല്ലെങ്കിൽ ഇന്നവരെ പാട്ട് സർച്ച ചെയ്യണം എന്നില്ല ഇന്ന ആളെ സെർച്ച് ചെയ്താലും കൂടി അതിൻ്റെ നമുക്ക് കിട്ടും അപ്പം പാട്ടുകളൊക്കെ അങ്ങനെയാണ് പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒത്തിരി ഇഷ്ടമുള്ളത് പാട്ടുകളാണ് മറ്റേ സൗണ്ട് ഇഷ്ടമാണ് മറ്റേ ഹിന്ദിയിലാണെങ്കിൽ സോനു നിഗത്തിൻ്റെ ശ്രേയ ഘോഷാലിൻ്റെയൊക്കെ അതിലുള്ള സിനിമ പെയറായിട്ട് വരുന്ന പാട്ടുകൾ പിന്നെ ഈ ആതിഫ് അസ്ലം അർജിത് സിംഗിൻ്റെയൊക്കെ വരിതിയിലാണെങ്കിൽ മുഹമ്മദ് റാഫിൻ്റെ പണ്ടത്തെ ക്ലാസിക് പാട്ടുകൾ മദൻ മോഹൻ്റെ സംവിധാനത്തിലുള്ള പാട്ടുകൾ മലയാളത്തിലാണെങ്കിൽ മറ്റേ ഇയാളുണ്ട് ഈ പറഞ്ഞ യേശുദാസാണ് ഏറ്റവും ഫേവറേറ്റ് പിന്നെ കുറച്ചു മറ്റേ ജയചന്ദ്രൻ ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ കുട്ടിക്കാണ് തമിഴിൽ പിന്നെ ഇന്ന ആളുടെ പേര് എനിക്ക് അറിയില്ല എസ് പി ബാലസുബ്രമണ്യത്തിൻ്റെ മോഡലാണ് തമിഴിൽ ഉള്ളത് പിന്നെ ഈ ഇപ്പം അടുത്ത് മറ്റേ ഇവനൊക്കെ ഉണ്ടല്ലോ തമിഴിലെ ഈ തെലുങ്കിലൊക്കെ പാടുന്നവൻ ഉണ്ട് അപ്പം ഇത്തരത്തിൽ ആളുകളെ പാട്ടുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കേൾക്കുന്നൊക്കെ ഉണ്ട്